നാട്ടിൻപുറത്ത് പഠിച്ച കുട്ടികൾക്ക് മനുഷ്യസ്നേഹം കൂടുതലായിരിക്കും എന്ന് തോന്നാറുണ്ട് മനുഷ്യൻ എന്ന നിലയിൽ സഹജീവികളോട് സ്നേഹം തോന്നുന്നതും സഹകരിക്കുന്നതും എല്ലാം ഗ്രാമങ്ങളിൽ പഠിച്ച കുട്ടികളിലായിരിക്കും നഗരത്തിൽ ഇപ്പം സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ സ്വാർത്ഥർ ആവാനാണ് സാധ്യത കൂടുതൽ അവർക്ക് ബുക്കിൽ ഉള്ളത് മാത്രമായിരിക്കും കൂടുതലും അറിയുക തൊട്ടടുത്തുള്ള വീട്ടിലെ ആളുടെ പേര് പോലും അറിയാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത് ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നതേ ഉണ്ടായിരിക്കില്ല അവർ പോവുന്നു വെരുന്നു ബുക്കിൽ ഉള്ളത് പഠിക്കുന്നു അതിനപ്പുറം അവർക്ക് വേറെ ഒന്നും അറിയില്ല പക്ഷേ നാട്ടിൻപുറത്തുള്ള കുട്ടികൾ അവർ ചുറ്റുപാടും കണ്ടും കേട്ടും അറിഞ്ഞും വളരുന്നവരാണ് നാടൻ കോഴിയും ബ്രോയ്ലർ കോഴിയും തമ്മിലുള്ളൊരു വ്യത്യാസം പോലെ തന്നെയാണ് അവർക്കൊരു സിറ്റുവേഷൻ വന്ന് കഴിഞ്ഞാൽ അവർ അതിനെ ഈസി ആയിട്ട് അതിനെ തരണം ചെയ്യാനായിട്ട് നാട്ടിൻപുറത്തുള്ള കുട്ടികൾക്ക് സാധിക്കും സാങ്കേതിക വിദ്യയിൽ ഗ്രാമത്തിലെ കുട്ടികളെക്കാളും മുന്നിലായിരിക്കും പട്ടണത്തിൽ പഠിച്ച കുട്ടികൾ മാത്രമല്ല ഇംഗ്ലീഷിലുള്ള പരിജ്ഞാനം ഒക്കെയാണെങ്കിലും ഇവർക്ക് തന്നെയായിരിക്കും കൂടുതൽ അതുകൊണ്ടുതന്നെ ഇൻറ്റർവ്യൂകളിൽ മുന്നിൽ എത്താനും ജോലി കിട്ടാനും എല്ലാത്തിനും സാധ്യത കൂടുതൽ പട്ടണത്തിൽ പഠിച്ച കുട്ടികൾ തന്നെയായിരിക്കും പക്ഷേ മനുഷ്യൻ എന്ന നിലയിൽ മറ്റുള്ളവരോട് സ്നേഹം അനുകമ്പ ഒക്കെ കൂടുതൽ ഗ്രാമത്തിൽ പഠിച്ച കുട്ടികൾക്ക് ആവാനാണ് സാധ്യത